ആ വരൂ ചേച്ചി എന്താ വേണ്ടത് ആ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ട് എത്ര വേണ്ടി വരും ഉണ്ട് സാർ ഒര് ലിറ്ററ് മതിയോ ആ ആ ഇവിടെ നമ്മള് ഫുൾ ഓർഗാനിക്ക് പ്രൊഡക്റ്റ് മാത്രമാണ് ഓർഗാനിക്ക് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ ഓ നമ്മള് നമ്മൾക്ക് അറിയുന്ന തോട്ടത്തിൽ ആ തോട്ടങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മള് തെങ്ങുകള് മൊത്തത്തിൽ എടുത്തിട്ട് ആ ലീസിന് എടുത്തിട്ട് അല്ല തെങ്ങുകള് മൊത്തം നമ്മള് ആ പറഞ്ഞ് കരാറില് പറഞ്ഞ് വെച്ച് ഒരുമിച്ച് നമ്മള് തേങ്ങ മൊത്തം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അന്ന് ഇവിടെ തന്നെ ഉണക്കിയിട്ട് നമ്മള് ഇവിടുന്നു തന്നെ ആട്ടുന്ന എണ്ണ ആണ് ഫ്രഷ് എണ്ണ ആണ് ഇവിടുന്ന് തന്നെ ആട്ടുന്നത് ആണ് ആ ആ നമുക്ക് ബേക്കറി ഐറ്റംസ് ആ നമുക്ക് കേക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് അതിൽ ഒക്കെ ഉപയോഗിക്കാം ആ ആ കുട്ടികൾക്ക് ഉപയോഗിക്കാം ആ കുട്ടികൾക്ക് ഓ നമുക്ക് ഇപ്പോൾ ആ തലയില് തേച്ച് കൊടുക്കാൻ ഒക്കെ ഇപ്പം കുളിപ്പിക്കുമ്പം ഒക്കെ ഉപയോഗിക്കാം അത് മേല് ഒക്കെ തേച്ച് കൊടുക്കാം ആ ന്യൂ ബോൺ ബേബി ന്യൂ ബോൺ ബേബിക്ക് ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഒരു കുഴപ്പം വരില്ല ഹ്മ് നല്ല എണ്ണ ആണ് അവർക്ക് ഇത് കേട് വരില്ല നമുക്ക് ലൈഫ് ലോംഗ് കേട് വരാണ്ട് ഇരിക്കും ഈ എണ്ണ നമ്മളുടെ അത്രയും നല്ല ഓർഗാനിക് ആണ് ഇല്ല ചുക്ക് ഒന്നും അടിക്കില്ല അത് നല്ല വെളിച്ചെണ്ണയാണ് നമ്മള് ഒന്നും ഇല്ലേല് നമ്മള് മെഷീനിൽ തന്നെ ചെയ്യുന്നത് ആണ് ഒരു കെമിക്കലും യൂസ് ചെയ്യുന്ന് ഇല്ല അത് ഒന്നും ശരി അല്ല അവിടെ ശുദ്ധീകരിച്ച എണ്ണയാണ് അത് നമ്മള് തന്നെ അത് ആക്കി കഴിഞ്ഞാൽ നമ്മള് മെഷീനിൽ ഇട്ട് നമ്മള് ശുദ്ധീ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന നല്ല ഒറിജിനൽ പ്യുവർ ഓയിൽ ആണ് ഹണ്ട്രഡ് പെർസെന്റ് പ്യുവർ ആണ് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ഒക്കെ അത് ചെയ്ത് വിടാറ് ഉള്ളത് ആണ് നല്ല പ്യുവർ ആയിട്ട് ഉള്ള എണ്ണ ആണ് കടയില് കടയില് ആ നമ്മള് ആ കടകളില് ചെല്ലുമ്പം ഡയറക്റ്റ് ഇവിടെ വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് മാത്രം ബൾക്ക് ആയിട്ട് ആണ് എടുത്തത് പോകുന്നവര് ഉണ്ട് കടകളിൽ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലാതെ കൊടുക്കുന്നില്ല നമ്മള് ഇപ്പം ചില കച്ചവടക്കാര് പറഞ്ഞിട്ട് നമ്മളുടെ കൈയ്യിൽ നിന്ന് ബൾക്ക് ആയിട്ട് തന്നെ എടുത്ത് നോക്കും പത്ത് മുപ്പത് ലിറ്ററ് എടു ത്തിട്ട് പോയിട്ട് അവര് ലൂസ് ആയിട്ട് വിൽക്കുന്നുണ്ട് ഹ്മ് അങ്ങന എടുക്കുന്നു ഹ്മ് ഇത് നമുക്ക് പാക്കറ്റ് ആയിട്ട് നമ്മള് കൊടുക്കുന്നില്ല ഗൾഫിലേക്ക് ഹസ്ബൻഡിന് കൊണ്ട് പോകാൻ ആണോ ഓക്കെ നമുക്ക് എടുക്കാം ആ ആ ഇപ്പം വേണോ അത്

ആ നമ്മള് കടയില് മാർക്കറ്റ് റേറ്റ് വെച്ച് കുറവ് ആണ് നമ്മള് മില്ലിൽ ഉള്ള റേറ്റ് കടയില് നൂറ്റി അമ്പത് രൂപ ആണ് ഇപ്പം എണ്ണയ്ക്ക് നമ്മള് നൂറ്റി മുപ്പത് രൂപ കൊടുക്കുന്നുള്ളൂ പത്ത് ലിറ്ററ് മതി അല്ലെ ആ ആ ഇത് എപ്പോഴത്തേക്ക് വേണ്ടി വരും

ആ ശരി ആ ഓക്കെ ഹ്മ് ആ ആ ശരി ഒര് ലിറ്ററ് ആ ശരി എന്നാൽ